ഇന്ന് ഇന്ത്യയില് അഭിമുഖീകരി അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാല് വെല്ലുവിളീന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അതിനെ സർക്കാരെങ്ങനെ നോക്കി കാണുന്നത് എന്നൊക്കെ നമുക്ക് പറയാം ഇപ്പോൾ പ്രധാനമായിട്ടുള്ള വെല്ലുവിളീന്ന് പറഞ്ഞാല് എന്താ റോഡില്ല വെള്ളമില്ല അങ്ങനെയുള്ളതൊക്കെ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് വെളളം ഇല്ലെങ്കിൽ തന്നെ നമുക്കൊന്നും ചെയ്യാനോ ഒരു കാര്യം തന്നെ പൂർത്തീകരിക്കാൻ തന്നെ പറ്റില്ല അങ്ങനെയുള്ള നമ്മളിപ്പം ഒര് പാർട്ടി കാർക്ക് നമ്മള് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഒക്കെ ചെയ്യും ആ സമയത്ത് അവര് നമുക്ക് നല്ല വാഗ്ദാനങ്ങള് തരും ഞാനിന്ന കാര്യങ്ങള് ചെയ്യും ഇവർക്ക് വെള്ളം ആണെങ്കിലും റോഡുകളാണെങ്കിൽ തന്നെ ഞങ്ങള് റെഡിയാക്കി തരും എന്നൊക്കെ പറയും എലക്ഷൻ കഴിഞ്ഞാൽ അവര് ജയിച്ചു കഴിഞ്ഞാല് അന്നത്തെ ദിവസം ഒന്ന് വന്നിട്ട് അങ്ങ് പോകും പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം എന്തെങ്കിലുമൊക്കെ ഒരാവശ്യമൊക്കെ ചെ പറഞ്ഞു ചെന്നാല് അവര് നടത്തി തരു ഒന്നു ഇല്ല ഇതൊക്കെയാണ് പിന്നെ ഇന്ന് ഇന്ത്യയില് അഭിമുഖീകരി കരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളീന്ന് പറഞ്ഞാൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ റോഡില്ലാത്തതും വെള്ളത്തിൻ്റെത് വീടില്ലാത്തത് അങ്ങനെയുള്ള പ്രശ്നങ്ങള് തന്നെയാണ്